ഹലോ ആ ഈ സ്ഥലത്തെ വൈദ്യുതി കറണ്ട് കിട്ടുന്നില്ലല്ലോ ഇവടെ യാതൊരു പ്രതികൂല കാലാവസ്ഥയും ഇല്ല പക്ഷേ കുറച്ച് നേരമായിട്ടിവിടെ കറണ്ടില്ല എന്താണ് കാരണമെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ എനിക്കത്യാവശ്യമായിട്ടൊരു മീറ്റിംഗുണ്ടായിരുന്നു ഒരു പത്തു മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഒരു മണിക്കൂർ പത്ത് മിനിറ്റല്ല ഒരു മിനിറ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ എനിക്കൊരു മീറ്റിംഗുണ്ടായിരുന്നു അതിനൊക്കെ എനിക്ക് നെറ്റ് അത്യാവശ്യമാണ് വൈഫൈ നെറ്റ് മാത്രമേ എനിക്കിവിടെ ഉള്ളു എനിക്ക് നെറ്റ് അത്യാവശ്യമായിരുന്നു അതിന് കറണ്ട് വേണം നിങ്ങളെങ്ങനെയെങ്കിലൊന്ന് പെട്ടന്നൊന്ന് ശരിയാക്കിത്തരാൻ സാധിക്കുമോ എത്രനേരംകൊണ്ട് കറണ്ട് തിരിച്ച് തിരിച്ചു പഴയ സ്ഥിതിയിലെത്തിക്കാൻ സാധിക്കുമെന്നൊന്ന് പറയാമോ അത്യാവശ്യമായിരുന്നു